ഇരുപത്താറേ പതിനൊന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടേ ഇരുപത്തഞ്ചേ ഒന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതേ പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി രണ്ട് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരം അഞ്ച് അഞ്ച് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ്